കേരളത്തില് സ്പെഷ്യലൈസ്ട് ഹെല്ത്ത് കെയര് സൗകര്യങ്ങള് എല്ലാം തന്നെ അവേയിലബിളാണ് എല്ലാം തന്നെ ലഭ്യമാണ് അതായതിപ്പോള് സാധാ ചികിത്സയാവട്ടെ ആയുര്വേദിക് ചികിത്സയാവട്ടെ ശസ്ത്രക്രിയകളാവട്ടെ എല്ലാംതന്നെ കേരളത്തില് ലഭ്യമാണ് ഇപ്പോള് അതിനായി രണ്ട്മൂന്ന് നല്ല ആശുപത്രികള് പറയാണെങ്കില് കേരളാ ഇന്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കല് സയന്സസുണ്ട് അമൃതാ ഇന്സ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കല് സയന്സുണ്ട് പിന്നെ ശ്രീ അവിട്ടം തിരുനാള് ഹോസ്പിറ്റല് തിരുവനന്തപുരത്തുണ്ട് അപ്പോള് ഇതെല്ലാം തന്നെ സാധാ ചെക്കപ്പ് മുതല് ശസ്ത്രക്രിയകള് വരെതന്നെ ചെയ്യുന്ന എല്ലാ സവിശേഷതകളും ഈ ആശുപത്രികളിലുണ്ട് ഇപ്പോള് പ്രസവ ചികിത്സയ്ക്കാവട്ടെ സ്ത്രീകള്ക്ക് കേരളാ ഗവണ്മെന്റ് വക ഫ്രീ ചെക്കപ്പും ഫ്രീ സൗകര്യങ്ങളും ലഭ്യമാക്കാറുണ്ട് അതേപോലെത്തന്നെ കുട്ടികള്ക്കാവട്ടെ ജനിച്ചയുടനെ ഉള്ള വാക്സിനേഷനുകളും അല്ലാതുള്ളതന്നെ മരുന്നുകളുമെല്ലാം പ്രസവിച്ച സ്ത്രീക്കും കുട്ടികള്ക്കും സൗജന്യമായി ഗവണ്മെന്റ് ആശുപത്രികളില് നല്കാറുണ്ട് അതേപോലെ മുതിര്ന്ന പൗരന്ന്മാര്ക്കായി ചെക്കപ്പിനും ആരോഗ്യസ്ഥിതി അറിയാനുമായി വയോമിത്രം പറഞ്ഞിട്ടൊരു പദ്ധതി വഴി ഫ്രീയായിട്ട് സൗജന്യമായിട്ട് ക്ലിനിക്കല് ചെക്കപ്പുകളും വൈദ്യസഹായവും മരുന്നും സൗജന്യമായി നല്കാറുണ്ട് അതുപോലെത്തന്നെ രോഗികളുടെ വീട്ടില്പോയി പാലിയറ്റീവ് ഹോം കെയര് നല്കുകയും വയോജനങ്ങള്ക്ക് സൗജന്യ ആമ്പുലന്സ് സേവനം നല്കുന്നതിനുമായിട്ട് കേരളാ ഗവണ്മെന്റ് മുന്നോടിയായി പലപല പദ്ധതികളുംസവിശേഷതകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്